എന്നെ സന്തോഷിപ്പിക്കുന്നതെന്തണെങ്കിൽ എൻ്റെ സാമ്പത്തിക ഭദ്രത എന്നതാണ് ഒറ്റ വാക്കിലുള്ള ഉത്തരം അതുപോലെ ശാരീരിക അസ്വസ്ഥതകൾ ഇല്ലാതെയാവുക അത് അതിൻ്റെ ഒരു ഘടകമാണ് എന്നാലും പൊതുവെ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അല്ലലില്ലാത്തൊരു ജീവിതം നയിക്കാൻ പറ്റുന്നു എന്നതാണ് എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ കാര്യം